ഹലോ ആ കാർത്തിക എന്താണ് വിളിച്ചത്

എന്ത് വാങ്ങാൻ മാലയാണോ

മൂന്ന് ഏട പോകുന്നു നീ ഏട തീരുമാനിച്ചത് നീ ഏട പൂവലാ എപ്പോഴും മൊനാർക്കിൽ ആ ഭീമയിൽ അവിടെ പണിക്കൂലി ഉള്ളത് തട്ടിപ്പ് എന്നെല്ലാം പറയുന്നുണ്ട് തൂക്കങ്ങൾ ബിന്ദുവിൽ പോയാൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഞാൻ പിന്നെ മിനിഞ്ഞാന്ന് പോയന്

ഉം അതെയോ അല്ല ഞാൻ മിനിഞ്ഞാന്ന് പോയിന് നല്ല നല്ല ആൻറ്റിഗോൾഡെല്ലാം നല്ല നല്ലത് ഉണ്ട് പോയാലോ മേക്കിങ്ങ് ചാർജ്ജ് അത് ഞാൻ കുറച്ച് ആളെ മിണ്ടിയിട്ട് പരിചയത്തിൻ്റെ ആളെല്ലാം ഉണ്ട് മേക്കിങ്ങ് ചാർജെല്ലാം കുറച്ച് കുറച്ച് തരും

ആ എന്ത് ഇപ്പോൾ അഞ്ച് ഞാൻ എടുക്കുമ്പോൾ മിനിഞ്ഞാന്ന് അഞ്ച് എണ്ണൂറ്റി അഞ്ച് എഴുന്നൂറ്റി എഴുപതുണ്ടായി ഇന്ന് കൂടി അഞ്ച് എണ്ണൂറ്റി പതിനഞ്ചായി ഗ്രാമിന് ഉം നല്ല ഒരു പൈസയാകും ഉം ഒരു ഒന്നര നേരെ ഒന്നര മേക്കിങ്ങ് ചാർജ് എല്ലാം വരുമ്പോൾ ഒരു ഒന്നേ എൺപത് അവിടെത്തോളം വരും

മൂന്ന് പവനെങ്കിൽ അത്ര വരും നല്ല നല്ല കളക്ഷൻസുണ്ട് മൂന്ന് പവന്നുള്ളത് നല്ലത് ഉണ്ട് ചെയിൻ അല്ലല്ലോ വേറെ വേറെ മാല അല്ലേ ചെയിൻ അല്ലല്ലോ വേറെ മാല അല്ലേ ഉം ഉം ഉം ബിന്ദുവിലേക്ക് പോവാം

ഏ എനിക്ക് ഇല്ല ഞാൻ മിനിഞ്ഞാന്ന് പോയിന് ആ അതുകൊണ്ട് ഇപ്പം വാങ്ങാനൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നല്ല നല്ല കളക്ഷൻസുണ്ട് എന്ന് കമ്മലെല്ലാം നല്ല നല്ലത് ഉണ്ട് ജിമിക്കി കമ്മലെല്ലാം ഉം അപ്പോൾ വൈകുന്നേരം പോവാം അല്ലേ ഓക്കെ ഓക്കെ ബൈ പിന്നെ വിളിക്കൂ ഓക്കെ ബൈ